അവിടുത്ത ഓണർ ആണോ സംസാരിക്കുന്നത് ആ സാർ അവിടുത്തെ ഫുഡ് അവിടുത്തെ ഏഹ് അല്ലല്ല ഓർഡർനല്ല ഞാനാണെങ്കിൽ അവിടുത്തെ ഫുഡിനെ കുറിച്ചൊരിത് അവിടുന്നൊര് മട്ടൺ സൂപ്പ് ഞങ്ങൾ കഴിച്ചായിരുന്നു അപ്പോൾ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അടിപൊളി സാധനം അപ്പത്തേക്കും ആ അത് അതിൻ്റെ റെസിപ്പിയൊക്കെ എനിക്കൊന്ന് പറഞ്ഞുതരണേ പിന്നെ അത് അതെനിക്കിന്ന് വേണം കേട്ടോ പാഴ്സൽ അയച്ചേക്കണേ അല്ല എൻ്റെ ഓഡറാണ് തന്നേക്കണേ അത് ശരി ഡോ ആ പിന്നെ നിങ്ങളെത്ര വർഷം ആയി തുടങ്ങിയിട്ട് കാലിക്കറ്റ് കഫേ വളരെ നല്ല ഫുഡ് ആണ് കേട്ടോ നിങ്ങൾ അവിടുത്തെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന രീതി അത് വളരെ നല്ലയാണ് പിന്നെ അവിടുത്തെ ആംബിയൻസും വളരെ നല്ലതാ കാരണം അവിടെ ഇങ്ങനെ എല്ലാവരെയും ആകർഷിക്കും

ആ അപ്പം വളരെ നല്ല ഒരു അഭിപ്രായം ആണ് എല്ലാവർക്കും ഞാൻ ഇങ്ങനെ ചോദിച്ചുനോക്കി അത് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ഹോട്ടലിലൊന്നും പോവാറില്ലായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് എന്നറിയില്ല എനിക്ക് ഇവിടുത്തെ ഹോട്ടലിൽ വന്നപ്പോൾ നല്ല രുചിയുള്ള ഭക്ഷണം ഏറെ നാളായി ഇങ്ങനെത്തെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നിങ്ങൾ ഇത് ബ്രാഞ്ച് പലയിടത്തും ഉണ്ടോ

ആ അതുപോലെത്തന്നെ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് പുതിയ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ

പിന്നെ എനിക്ക് അവിടെ ഒരു പോരായ്മയായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ ഇവരില്ലേ നമ്മുടെ വർക്ക് ചെയ്യുന്നവർക്കൊരു നല്ല കമ്പൽസായിട്ടുള്ള യൂണിഫോം കൊടുക്കണം കേട്ടോ കാരണം എല്ലാവരും പല ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് ഒരു ഒരു യൂണിറ്റി തോന്നുന്നില്ല ആ ഒരു ഡ്രസ്സൂടെ കൊടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആവും

ഓക്കെ ആ ആ പിന്നെ എന്ന് ആ ഓക്കെ ആ പിന്നെ നിങ്ങൾ ഇരുപത് വർഷം ആയി എന്നല്ലേ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് എല്ലായിടത്തും നല്ല കോംപ്ലിമെൻറ്റ്സ് ആണോ കിട്ടുന്നത് അപ്പം വളരെ നല്ല ഫുഡ് ആണ് അപ്പോൾ ഇതുപോലെത്തന്നെ മുന്നോട്ട് പോവുക പിന്നെ എനിക്ക് കുറേ ഡിഷസ് എനിക്ക് നിങ്ങളെ അവിടുന്ന് കഴിക്കാനുണ്ട് ഓർഡർ ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാം ഞാൻ വഴി ബുക്ക് ചെയ്യാം വഴിയേ ഓർഡറെയ്യുന്നയായിരിക്കും കേട്ടോ ആ ശരി ശരി ഓക്കെ